നമുക്ക് പോവുകയല്ലെ എന്നാൽ പോവുകയല്ലെ നമ്മളെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമേ ആ കുടുംബം ഉള്ളത് നമുക്ക് ഇവിടെനിന്ന് ഏകദേശം എത്ര സമയം എടുക്കും ഏട്ടാ ഒന്നര മണിക്കൂർ നമ്മൾ ഇപ്പം ഏതിൽ കൂടിയാണ് പോവുക ഇവിടെനിന്ന് കറക്ട് റൂട്ട് ഒന്ന് പറഞ്ഞുതരുമോ

അതെ അതെ അവിടെ നമുക്ക് നല്ല ഹോട്ടൽ എന്തെങ്കിലും ഉണ്ടോ അതിൻ്റെ അടുത്ത് ബ്രാഹ്മിൺസ് ഹോട്ടലോ വെജിറ്റേറിയൻ ഹോട്ടലോ ആ ആ ആ ആ ആ ആ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഇപ്പോൾ എത്ര ഒന്നര മണിക്കൂർ ഇല്ലെ ഏകദേശം എത്ര കിലോമീറ്റർ വരും ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ഓക്കെ അപ്പം നമുക്ക് ഇപ്പം ഏകദേശം എത്ര ആകും പൈസ പോയി വരാൻ ആ പിന്നെ നമുക്ക് അവിടെ ഇപ്പം കറക്ട് ടൈപ്പ് അവിടെ പോയിക്കഴിഞ്ഞാൽ നട തുറക്കണ സമയം ആണോ അവിടെ അമ്പലത്തിൽ അല്ല വൈകുന്നേരം ഉണ്ടെന്ന് പറഞ്ഞല്ലൊ അപ്പം വൈകുന്നേരം എത്ര മണിക്കാണ് തുറക്കുക ആ അപ്പം നമ്മൾ എത്തണ സമയത്ത് ആ പിന്നെ ഒരു അര മണിക്കൂറിൻ്റ വ്യത്യാസം അല്ലെ ഉള്ളൂ ആ അപ്പം കുഴപ്പമില്ല അപ്പം ചേട്ടൻ അവിടെ വെയ്റ്റ് ചെയ്യുമല്ലോ അല്ലെ പ്രശ്നം ഒന്നും ഇല്ലല്ലൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇത് കഴഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പിക്ക് ചെയ്യും വേറെ വർക്ക് ഒന്നും ഇല്ലല്ലൊ ചേട്ടാ ഓട്ടോക്കാർ ഉണ്ട് ആ അപ്പം നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് വേറെ ഒന്ന് രണ്ട് സ്ഥലം കൂടി പോകുവാൻ ഉണ്ട് ആ അപ്പം അത് കഴിഞ്ഞിട്ട് പോവാലോ അല്ലെ ആ ശരി ഏട്ടാ നമുക്ക് എന്നാൽ വേഗം പോവാം അപ്പോൾ നട തുറക്കണ സമയത്തേക്ക് നമുക്ക് അവിടെ എത്താമല്ലോ